ഞാനിങ്ങനെ പൊതുവെ എഴുതാനും വായിക്കാനും ഒക്കെ താൽപര്യുള്ള ഒരാളാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ക്ക് പൊതുവെ മലയാളം വെച്ച് മലയാളം പുസ്തകങ്ങളില് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ വളരെ ഇഷ്ടമാണ് അദ്ദേഹം ഓരോരോ ബുക്ക് പുസ്തകത്തിനാണെങ്കിലും അയാള് എഴുതുന്ന ഓരോ വർണ്ണനകളും വിവരണങ്ങളും ഒക്കെ വളരെ ആകർഷണീയമാണ് കുറെ എന്താണ് ചിരിക്കാനും ചിന്തിപ്പിക്കാനും കരയാനും എല്ലാമായിട്ട് എഴുതുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പല പല പുസ്തകങ്ങള് ഇപ്പം ഉദാഹരണങ്ങളായി പറയുകയാണെങ്കിൽ പത്തുമ്മേൻറ്റെ ആട് നമ്മുടെ ഡെയിലി ലൈഫില് നടക്കുന്ന കാര്യങ്ങള് തന്നെയാണ് ആളെഴുതിയിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് ഉള്ള കാര്യങ്ങളാണ് പക്ഷെ ആ ഡെയിലി ലൈഫില് നടക്കുന്ന കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളില് വളരെ നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കാനും നമ്മളെ ഓരോ ചെയ്യുന്ന ഓരോ കുഞ്ഞ് കാര്യത്തിലും എത്രത്തോളം ചിന്തിക്കാനുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നൊരു വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീറെന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മള് എന്താണ് നമ്മുടെ ഡെയിലി ലൈഫില് നടക്കുന്ന ഓരോ കുഞ്ഞി കുഞ്ഞി കാര്യങ്ങളും നമുക്കെത്രത്തോളം ചിരിക്കാനുണ്ട് നമ്മളെ നമ്മുടെ ജീവിതത്തിലോരോ പ്രതിസന്ധികളിലും നമ്മളിങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കാറുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫില് എത്രത്തോളം ചിരിക്കാനുണ്ട് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരെഴുത്തുകാരനും കൂടിയാണ് ഇപ്പോൾ കുട്ടികളുടെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി മുതിർന്നവരുടെ വരെ ഭാഗങ്ങളിൽ നിന്ന് ചിന്തിക്കാനും എങ്ങനെയാണ് ഓരോരുത്തരെയും ജീവിതത്തില് എങ്ങനെയാണവരുടെ അനുഭവങ്ങൾ അവരെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് ഓരോരോ ലൈഫ് എക്സ്പീരിയൻസ് ആളുടെ ലൈഫിൽ നിന്ന് തന്നെ ആള് നമുക്ക് പറഞ്ഞ് തരും നമ്മളുമായിട്ട് നമ്മുടെ ജീവിതത്തില് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള് നമുക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങളും കുഞ്ഞി കുഞ്ഞി സങ്കടങ്ങളും ഒക്കെയായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും അതേപോലെ തന്നെ ഒരുപാട് എഴുത്തുകാരുണ്ട് ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എം ടി വാസുദേവനാണെങ്കിലും സാറാ ജോസഫാണേലും പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തവായിട്ട് ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒരേപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരെഴുത്ത് കാരൻ തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീറെന്ന് പറയണത് ഒരു വ്യക്തി എന്ന നിലയില് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനല്ല മെയ്നായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞി കുഞ്ഞി കാര്യങ്ങളില് എനിക്കെത്രത്തോളം ചിരിക്കാനുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചൊരു വ്യക്തിയാണ് ആള് അതുകൊണ്ട് തന്നെ എനിക്ക് ആളുടെ പുസ്തകങ്ങളായാലും ഇപ്പം എൻറ്റുപ്പാക്കൊരാനേണ്ടാർന്ന് എന്താണ് ഒരു കുഞ്ഞു കുഞ്ഞി പാത്തൂമ്മെൻ്റെ ജീവിതത്തിൽ നിന്ന് അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളും ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും എല്ലാ സന്ദർഭങ്ങളും എന്നെ വളരെ ഇൻട്രസ്റ്റിങ്ങായിട്ട് തോന്നിയിട്ടുണ്ട് വളരെ അട്ട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം മജീദും സുഹറയാണെങ്കിൽ തന്നെ അവരുടെ സൗഹൃദം എത്രത്തോളം വലുതായിട്ടും തീരാത്ത ആ സൗഹൃദത്തെക്കുറിച്ചൊക്കെ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്ത്കാരൻ തന്നെയാണ് ബഷീറ്